ഹലോ കേൾക്കാമോ ആ എന്താ മേഡം

ആ അതിനെന്താ മേഡം ഓഹ് നാളെ എന്തോ ദിവസവാണ് മേഡം നാളെ ബുധനാഴ്ച്ചയല്ലേ നാളെ എനിക്ക് നേരത്തെ പോകണം കാരണം നാളെ മകളും കുട്ടിക്കളുമൊക്കെ വരുന്നുണ്ട് വീട്ടിൽ അതുകൊണ്ടെനിക്ക് നാളെ നേരത്തേ പോകണം ബുധനാഴ്ച്ച അയ്യോ ഇപ്പോൾ എങ്ങനെയാണ് മേഡം ഒരു അരമണിക്കൂർകൂടെ നിൽക്കുക വച്ചാൽ ഞാൻ നാലു മണിക്കല്ലെ പോന്നത് അപ്പോൾ

ആ മേഡം ശമ്പളം തരുന്നതിൻ്റെ കാര്യമൊന്നും പറയണ്ട ഈ എണ്ണായിരം രൂപയ്ക്ക് എവടെ നിൽക്കുമെന്നാണ് അപ്പുറത്തെ എന്നാലും മേഡം ഈ എന്നാലും മേഡം അങ്ങനെയൊന്നും പറയരുത് ഇന്നത്തെ കാലത്ത് എന്തിനെല്ലാമാണ് വിലകൂടുന്നത് പിള്ളാരെ പഠിപ്പിക്കുന്നതിനായാലും പൈസ കൂടുന്നില്ലെ ഈ എണ്ണായിരം രൂപയ്ക്ക് ഞാനിത് വീണ്ടും ഒരു അരമണിക്കൂറോളം നിൽക്കണമെന്നാന്നോ പറയുന്നത് അപ്പുറത്ത് സുമതിയുടെ വീട്ടിൽ മാസം പതിനായിരം രൂപയാണ് കൊടുക്കുന്നത് ആ ആ അതെൻ്റെ ഭർത്താവ് എന്നെ വഴക്ക് പറയുമ്പോൾ പിള്ളേരുമൊക്കെ വരുമ്പോൾ നീ വീട്ടിലില്ലെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ച് എന്നെ വഴക്ക് പറയത്തില്ലേ അപ്പോഴും ഞാനെങ്ങനെയാണ് ഒന്ന് നേരത്തെ പറയണ്ടായോ രണ്ടു ദിവസം മുമ്പേ പറഞ്ഞെങ്കിൽ അതനുസരിച്ച് ഞാൻ വീട്ടിൽ പറഞ്ഞേനെയല്ലോ അയ്യോ ഇപ്പോൾ എന്നെ ഇങ്ങനെ വിഷമത്തിലാക്കല്ലേ മാഡം ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ഈ സമയത്ത് പറഞ്ഞാൽ ഞാൻ വീട്ടിലും പറഞ്ഞിട്ടില്ല എന്നാലും മേഡം ഈ പറയുന്ന വീട്ടിലൊന്നും പറയാതെയൊക്കെ എങ്ങനെയാണ് വീട്ടിൽ പറയാതെ എനിക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല മേഡം ഞാൻ വീട്ടിലൊന്ന് പറഞ്ഞാലെ പറ്റത്തുള്ളു ഓഹ് എന്തോ ചെയ്യാനാണ് മേഡം ഒരു കാര്യവും എനിക്ക് പറഞ്ഞ് തരാനും പറ്റുന്നില്ലല്ലോ വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള അവസരം അവസ്ഥകൾ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ തീർച്ചയായും നിന്നേനെ അങ്ങേർ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല അങ്ങേരെന്നെ വഴക്ക് പറയും നീ സമയത്തിന് പോയി നാലുമണിക്കുതന്നെ വീട്ടിലെത്തിക്കോണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴെന്തോ ചെയ്യും ഞാൻ ആ ഒരു കാര്യം ചെയ്യു മാഡം എന്നാൽ വിളിച്ചൊന്ന് പറഞ്ഞാൽ മതി എൻ്റെ ഭർത്താവിനോടൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി അവൾ നാളെ ഒരു അരമണിക്കൂറും കൂടെ ഒരു അധികം നിന്ന് ഒരു നാലരയായിട്ടെ വരത്തുള്ളു നാലര കഴിഞ്ഞിട്ടേ വീട്ടിൽ എത്തത്തുള്ളൂ എന്നൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ അതിയാൻ സമ്മതിച്ചേനെ ഇപ്പം ഞാൻ നോക്കട്ടെ മാഡം നാളെ അല്ലെങ്കിൽ നാളെ രാവിലെ വരനാണെന്നുണ്ടെങ്കിൽ ആ ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കാം മേഡം അങ്ങനെയാണെങ്കിൽ നിൽക്കാം മാഡം അങ്ങനെയാണെങ്കിൽ എനിക്ക് ആയിരം രൂപ കൂടുതൽ തരേണ്ടിവരും ഞാൻ ഞാൻ ഇത്രേയും റിസ്ക്കെടുത്ത് മാഡത്തിനൊരു നല്ല കാര്യത്തിനു വേണ്ടിയിട്ട് ഞാൻ റിസ്ക്കെടുത്ത് നിൽക്കുന്നതല്ലേ എൻ്റെ കെട്ടിയവൻ്റെ ചീത്ത വിളിയും കേട്ടു നിൽക്കുന്നില്ലേ അപ്പോൾ ആയിരം രൂപയൊന്നും കൂടുതൽ അല്ല മേഡം മേഡത്തിന് കല്ല്യാണത്തിന് പോകണോ ആ എന്നാലും മേഡം ആ ഞാൻ നിൽക്കാം മേഡം ആ ഓക്കെ